ഒന്ന് ആറ് ആയിരത്തിത്തൊണ്ടായിരത്തി തൊണ്ണൂറ്റൊന്ന് ഏഴ് ഏഴ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എട്ട് എട്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒമ്പത് ഒന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ട് രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട്